ഉണ്ട് എൻ്റെ സംസ്കാരത്തിന് പുറത്തുള്ള വിഭവങ്ങൾ ഞാൻ പല സമയത്തും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചൈനീസ് വിഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടമുള്ള വിഭവങ്ങളാണ് അപ്പോൾ ഞാൻ പല സമയത്തും അങ്ങനത്തെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പൊതുവേ എനിക്ക് ഇഷ്ടമുള്ള ചൈനീസ് വിഭവങ്ങൾ എന്നു പറയുമ്പോൾ നൂഡിൽസും ഫ്രെയ്ഡ് റൈസും ഒക്കെ ആണ് അത് കോഴിയിറച്ചിയോ അല്ലെങ്കിൽ ഇറച്ചി ഇല്ലാതായോ മുട്ടയൊക്കെ വെച്ചും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഫ്രെയ്ഡ് റൈസും നൂഡിൽസും അപ്പോൾ ഫ്രയ്ഡ് റൈസാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതലിഷ്ടം ഫ്രയ്ഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ എടുക്കുന്ന ആദ്യം തന്നെ കുറച്ച് ഒരു പാത്രമെടുത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ മുട്ട കുറച്ചൊന്നു പൊരിച്ചെടുക്കും ചെറിയ ചെറിയതായിട്ടൊന്നു ചിക്കി പൊരിച്ചെടുക്കും അതുകഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്കു തന്നെ കുറച്ച് പച്ചക്കറികൾ അതായത് നമ്മുടെ ക്യാബേജായാലും അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനത്തെ കുറച്ചു പച്ചക്കറികൾ ഒക്കെ ഇട്ടൊന്നു വഴറ്റിയെടുക്കും കുറച്ചു വേണമെങ്കിൽ പച്ചമുളകും ഒക്കെ ഇടാം നമുക്ക് പിന്നെ കുറച്ചൊരു വെളുത്തുള്ളി പിന്നെ സോയാ സോസ് പിന്നെ തക്കാളിയുടെ സോസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് ഉണ്ടാക്കി കിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് മുമ്പുണ്ടാക്കിവെച്ചിരുന്ന മുട്ടയും കുറച്ചരിയും അരി ഓൾറെഡി വേവിച്ച അരിയായിരിക്കണം അരിയും കൂടെ ഇട്ടിട്ട് നല്ലരീതിയിൽ ഇളക്കി തട്ടിട്ട് ഇളക്കിയെടുക്കുമ്പഴേക്കും ഫ്രെയ്ഡ് റൈസ് റെഡിയാകും നമുക്ക് അതു തയ്യാറായ ഫ്രെയ്ഡ് റൈസ് നമുക്കെടുത്ത് കുറച്ചുംകൂടി സോസ് കൂടി വെച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്കു മാറ്റി കഴിക്കാൻ സാധിക്കും ഈ പൊതുവേ ഇത് വളരെയെളുപ്പമുള്ള ഒരു വിഭവമാണ് സമയം കുറവുള്ളപ്പോഴും പെട്ടെന്നു ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വിഭവമാണ് കാരണം വീട്ടിലുള്ള സാധനങ്ങളൊക്കെതന്നെ മതി ഈ വിഭവം ഉണ്ടാക്കാൻ അപ്പോൾ ഇത് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് അപ്പോൾ ഇടക്കിടക്ക് ഞാൻ ഇത് ഉണ്ടാക്കാറുണ്ട് കഴിക്കാറുണ്ട് അപ്പോൾ ചൈനീസ് ഫ്രെയ്ഡ് റൈസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഭവമാണ് ഇത് എൻ്റെ പാരമ്പര്യത്തിന് നമ്മളുടെ സംസ്കാരത്തിന് പുറത്തുള്ളൊരു വിഭവമാണ് എന്നാലും നമ്മളിതൊക്കെ ഇങ്ങനെ പല സംസ്കാരത്തിൽനിന്നുള്ള ഭക്ഷണ വിഭവങ്ങൾ കഴിച്ച് പല സംസ്കാരങ്ങളെയും മനസ്സിലാക്കാൻ വളരെ അധികം നല്ലൊരു ഫലപ്രദമായൊരു രീതിയാണ് അപ്പോൾ അത് എന്തുകൊണ്ടും വളരെ നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിപ്പോൾ ഉണ്ടാക്കണ എങ്ങനെയാണുണ്ടാക്കേണ്ടതെന്നു നമുക്കറിയില്ലെങ്കിൽ ഇതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് നമുക്ക് നവമാധ്യമങ്ങളിലും ഇൻ്റെനെറ്റിലുമെല്ലാം ലഭ്യമാണ് പല വിഭവങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്തൊക്കെ ചെയ്യാം എന്നരീതിയിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ വീഡിയോ രൂപത്തിൽ കിട്ടുന്നാണ് അപ്പോൾ അത് നോക്കി നമുക്ക് സുഖമായിട്ട് ഇങ്ങനത്തെ പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും